ഹല്ലോ അ ഞാൻ അടുത്ത ഞായറാഴ്ചത്തേന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അതേയതെ ഞാനൻ ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലൊ അവിടെവന്ന് ഫാമിലി ആയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് ഇപ്പം ഞായറാഴ്ച അവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഞാൻ അതിന് ബുക്ക് ചെയ്തപ്പം ആയിരം രൂപ അഡ്വാൻസ് അടച്ചിരുന്നല്ലൊ ആ അതേ ആ അടച്ച പൈസ എനിക്കു തിരിച്ചു തരാൻവേണ്ടി കഴിയുമോ ആ അത് അഡ്വാൻസ് തിരിച്ചു തരാമല്ലൊ അതിനു കുഴപ്പമൊന്നുമില്ലല്ലൊ അതേ അതേ തിരിച്ചു തരുമ്പം മുഴുവൻ എമൗണ്ടുണ്ടാവില്ലല്ലെ അത് കുഴപ്പമില്ലാ ഇങ്ങള് പിന്നേ ബാക്കിയുള്ള പൈസയൊക്കെ പിടിച്ചതിനു ശേഷമുള്ള അമൗണ്ട് എനിക്ക് ഗൂഗിൾ പ്പേയിലോ ഫോൺ പേയിലോ ആയിട്ട് തിരിച്ച് അയച്ചാൽ മതി അ ഈ നമ്പറിൽത്തന്നെ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് അതിലോട്ടയച്ചാൽ മതി പൈസ ഇങ്ങളുടെ സർവീസ് ചാർജും മറ്റ് എത്രയാണെന്നു വെച്ചാൽ അതിൻ്റെ പൈസ കുറച്ചിട്ട് ബാക്കി അമൗണ്ട് എനിക്കയച്ചു തന്നാൽ മതി ആ അത് അല്ലെങ്കിലെൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട് ബാങ്ക് എക്കൗണ്ട് നമ്പർ ഞാൻ തരാം അ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സീ കോഡും അയച്ചു തന്നാൽ ആ ബാങ്ക് എക്കൗണ്ടിലോട്ട് പൈസ അയച്ചാലും മതി ആ ഹാ ഹ ഗൂഗിൽ പേ ആണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു ഗൂഗിൾ പേയ്യിൽ അയച്ചു തന്നാൽ അതെ അതെ ആ നിങ്ങളെന്നെ അങ്ങനെ ചെയ്യൂല്ലല്ലെ ഓക്കെ ഓക്കെ ശരിയെന്നാൽ